ടെ ദേശീയ തലത്തിൽ അന്തർ ദേശീയ തലത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നടത്താറുള്ള ഒരു കളിയാണ് ഫുട്ബോള് എല്ലാ പ്രായക്കാർക്കും കളിക്കാവുന്നതാണ് പക്ഷേ എന്നാലും അധികം കളിക്കാറ് ചെറുപ്പക്കാരും കുട്ടികളും ആണ് ഭയങ്കര രസമുള്ളൊരു കളിയാണിത് നമ്മടെ ടൂർണമെൻറ്റുകളെ കണ്ട് പൈസ വെച്ച് കളിച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളില് കുട്ടികള് ടൂർണമെൻറ്റ് പോസ്റ്റടിച്ച് ടൂർണമെൻറ്റ് കണ്ട് ആൾക്കാരെ വിളിക്കും ഓരോ ടീമുകള് നിന്നുകൊണ്ട് ടൂർണമെൻറ്റിന് ഫീ അടച്ച് കളിക്കും ജയിക്കുന്നർക്ക് ട്രോഫിയും അതേപോലെ ഒരു ക്യാഷ് പ്രൈസും ഉണ്ടാവും ഈ ഫുട്ബോളെന്നു പറയുന്നത് ഭയങ്കര രസമുള്ള കളിയാണ് കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതേപോലെ കുട്ടികള് നന്നായിട്ട് കളിക്കുന്നൊരു കളിയാണ് ഫുട്ബോള് പ്രത്യേകിച്ച് പ്രായ പരിധിയൊന്നും അതിലില്ല ആരോഗ്യമുള്ള ആർക്കും കളിക്കാവുന്ന ഒരു കളിയാണത് സാധാരണ ഫുട്ബോള് ഇലവന്സാണ് കളിക്കലു പതിനൊന്ന് ആളുണ്ടാവും സെവൻസാണെങ്കില് ഏഴ് പേരുണ്ടാവും ത്രീസാണെങ്കില് മൂന്നാളുണ്ടാവും സാധാരണ ഫുട്ബോളുകളൊക്കെ കളിക്കുന്നത് ഇലവന്സാണ് ദേശീയ തലത്തിലും അന്തർ ദേശീയ തലത്തിലൊക്കെ ഇലവന്സാണ് സാധാരണ കളിക്കല് അല്ലാതെ നാട്ടില് കളിക്കുകയാണെങ്കില് ത്രീസോ അല്ലെങ്കിൽ ഫൈവ്സോ സെവൻസോ ആണ് സാധാരണ കളിച്ചുവരുന്നത്